ഞങ്ങളുടെ ഇവിടെ ഓടെ ഇവിടെ അങ്ങനെ മലിനമായത് ഒന്നും അല്ല ഓട ഓടെ എല്ലായിടത്തും ഓടകൾ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ മലിനജലം പോകുന്നുണ്ട് അങ്ങനെ മലിനജലം കെട്ടി കിടക്കുന്നൊന്നുമില്ല വൃത്തിഹീനമായ സാഹചര്യങ്ങളൊന്നും ഞങ്ങളുടെ പ്രദേശത്ത് ഇല്ല എല്ലാം നല്ല ഓടയൊക്കെ കെട്ടി വാർത്തു വച്ചരിക്കുന്നതാണ് പിന്നെ വീട് വഴിയുള്ള ഓടകളിലും ഒക്കെ ആണെങ്കിൽ തന്നെയും അത് എല്ലാവരുടെ വീട് വഴി ഓട നിർമ്മിച്ചിട്ടുള്ളതു കൊണ്ട് അങ്ങനെ മലിന ജലമൊന്നും കെട്ടി കിടന്നില്ല എല്ലാം നല്ല വൃത്തിയോട് കൂടിയൊക്കെ ഇരിക്കുന്നത് ഇനി ഇപ്പം പെട്ടന്ന് ഒരു ഓട വേണം എന്നുള്ള അങ്ങനെ ഒരു ആവശ്യമില്ല ഞങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം നല്ല വൃത്തിയിലാണ് എല്ലാ ഇടവും ചെയ്തിട്ടിരിക്കുന്നത് ആ പ്രദേശത്തു കൂടെ ഉള്ളത് വെള്ളം വരുന്ന ഇടത്തൊക്കെ ഉള്ള എല്ലാ പ്രദേശങ്ങളും നല്ല രീതിയിലാണ് ഓട കെട്ടി വാർത്തിട്ടിരിക്കുന്നത്